അത്യാവശ്യം സൗന്ദര്യമുള്ള ഒരു മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആണ് ഞാൻ ഒരു കൃഷിയാണ് എൻ്റെ തൊഴില് എന്തുകൊണ്ട് കൃഷി തിരഞ്ഞെടുത്തു എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടെല്ല് തന്നെ കൃഷിയാണെന്ന് ആണ് നമ്മൾ പറഞ്ഞു വരുന്നത് പിന്നെ ആരോഗ്യങ്ങളിൽ ഞാൻ എൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ ആരോഗ്യ കാര്യങ്ങളിൽ ഞാൻ വളരെയധികം ശ്രദ്ധ പുലർത്താറുണ്ട് രാവിലെ എണീറ്റ് നടക്കാൻ പോകും വൈകുന്നേരങ്ങളിൽ യോഗ ചെയ്യും പിന്നെ എൻ്റെ ആഹാര ശീലങ്ങൾ ആണെങ്കിലും വളരെ ചിട്ടയോടു കൂടിയാണ് ഞാൻ അത് പരിപാലിച്ചു പോകുന്നത് മറ്റു കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ ഇഷ്ട വിനോദങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും രണ്ടും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ് മറ്റു ഹോബീസ് ആണെങ്കിൽ ചിത്രം വരയ്ക്കും പിന്നെ ക്യാരംസ് കളിക്കാൻ പോകും അങ്ങനെ ഒരുപാട് ഒരുപാട് ഹോബീസ് ഉള്ള ഒരു കൂട്ടത്തിലാണ് മറ്റ് ആൾക്കാരോട് പെരുമാറുന്ന കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വളരെ സൗഹാർദ്ദപരവും സാമൂഹ്യപരമായിട്ടും നല്ലോണം ഇടപെടാൻ കഴിവുള്ള ഒരാളാണ് മറ്റ് ആൾക്കാരോട് സംസാരിക്കുന്ന രീതികൾ ആണെങ്കിലും അവരോട് ചങ്ങാത്തം കൂടുന്നതാണെങ്കിലും പെട്ടെന്ന് ആരോടും ചങ്ങാത്തം കൂടുന്ന ഒരു പ്രകൃതത്തിൽ ഉള്ളൊരു വ്യക്തിയാണ് പിന്നെ സഹായ അനുഭൂതി ഒരുപാട് ഉള്ള ഒരു ആൾ കൂടെയാണ് ഇപ്പോൾ അനാഥാലയങ്ങളിൽ ആണെങ്കിലും പിന്നെ മറ്റ് സാമൂഹ്യ സഹായ പരിപാടികളിൽ ആണെങ്കിലും അതിൽ പങ്കെടുക്കുകയും അതിൻ്റെ പ്രചരണ പരിപാടികളിൽ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് മറ്റ് കാര്യങ്ങൾ ആണെങ്കിൽ ഇഷ്ട വിനോദം ആണെങ്കിലും പിന്നെ സ്ഥലങ്ങൾ പുതിയ പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും യാത്ര ചെയ്യാനും ഒക്കെ ഒരുപാട് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ